യാത്രകൾ ഒരുപാട് ഇഷ്ട്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ യാത്രകളിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ അധികമൊന്നും ചെയ്യാൻ വേണ്ടി പറ്റീട്ടില്ല നമ്മൾ സാഹചര്യം ഒക്കെ നോക്കണ്ടേ അപ്പം അധികമൊന്നും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റീട്ടില്ല അപ്പം ചെറിയ കാലത്ത് പണ്ട് വയനാട്ടിലൊരു ടൂറ് പോയായിരുന്നു ചെറുപ്പകാലത്ത് ആദ്യമായിട്ട് പോയതാണ് അപ്പം അവിടെ ഇടക്കൽ ഗുഹയിലേക്ക് കയറിയതും വളരെ നല്ലൊരു സ്ഥലം പ്രകൃതി മനോഹരമായ സ്ഥലം എടക്കൽ ഗുഹ എടക്കൽ ഗുഹയിലേക്ക് കയറിയ ആ ഒരു കയറ്റത്തേ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഓർക്കുന്നു നല്ല തണുപ്പാണ് ഗുഹേൻറ്റുള്ളിൽ അടിപൊളി സ്ഥലമായിരുന്നു പിന്നെ എന്താ പറയുക വളരെ നല്ല സ്ഥലമായിരുന്നു വളരെ നല്ലൊരനുഭവം നമുക്ക് ക്ഷമയാണ് ഏറ്റോം വലിയ കാര്യം ഈ റോക്ക് ക്ലൈമ്പിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമ എത്രത്തോളം നമ്മൾ ഉണ്ട് എന്ന് പരീക്ഷിക്കപ്പെടും പിന്നെന്താണ് പറയാനുള്ളത് വളരെ നല്ല ഒരനുഭവം തന്നെ ആയിരുന്നു അങ്ങനെയുള്ള യാത്രകൾ യുണീക് ആയിട്ടുള്ള യാത്രയായിരുന്നു അങ്ങനെയുള്ള യാത്രകളൊന്നും ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല ചെറിയ കാലത്ത് സുഹൃത്തുക്കളോടൊപ്പം പോകുന്നത് വളരെ നല്ല ഒരനുഭവം ആണല്ലോ